ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ എടുക്കുന്നത് വച്ചു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിൻ്റെ കല്യാണത്തിനാണ് ആദ്യമായിട്ട് ഞാൻ ക്യാമറ കഴുത്തിൽ കൂടിയിട്ട് വമ്പന് ഷോയൊക്കെ കാണിച്ചു നടക്കുമ്പോൾ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ എന്നെ ഇത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് വച്ചു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തതെന്ന് വച്ചു കഴിഞ്ഞാൽ എൻ്റെ ഏട്ടനായിരുന്നു അമൽ എന്നാണ് പേര് മൂപ്പരാണ് എന്നെ ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഞാൻ പിന്നെ ഒരു സ്റ്റുഡിയോ പോയി ചേർന്നു ഫോട്ടോ എടുത്ത് പഠിക്കാൻ പിന്നെ കല്യാണ വർക്കിനൊക്കെ പോയി ഫോട്ടോ എടുക്കാനും ഇങ്ങനത്തെ കാര്യങ്ങൾകൊക്കെ ഞാൻ പഠിച്ചു പക്ഷെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഫോട്ടോ എന്നു വച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എടുക്കാൻ ഇഷ്ടം എന്ന് വച്ചു കഴിഞ്ഞാൽ കുറേ കിളികൾ അതും അതേപോലെ ചെറിയ കുട്ടികളെ ഫോട്ടോഗ്രാഫിങ്ങ് അങ്ങനെ അങ്ങനെ കുറേ ഫോട്ടോസ് എടുക്കാനും എനിക്ക് മുമ്പ് ഇഷ്ടം

ഈ ഫോട്ടോ ഏട്ടന് പറഞ്ഞ സമയത്ത് സപ്പോട്ട് ചെയ്ത സമയത്ത് അമലെന്ന് പറഞ്ഞ ഏട്ടന് സപ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മൾ അത് മൈൻഡ് ആക്കിയില്ല എങ്കിൽ നമ്മൾ ഇപ്പോൾ എനിക്ക് ഒരു പണി ഇല്ലാതെ ആയേനെ ആ ഫോട്ടോ കാരണം എനിക്ക് പണിയായി പിന്നെ അതുപോലെ നമുക്ക് ജീവിക്കാനും പഠിച്ചു